ഞങ്ങള് കളിക്കുന്ന പരമ്പരാഗത കളിയെന്നു പറയുമ്പോൾ സാറ്റ് കളിക്കാറുണ്ട് സാറ്റ് കളിക്കുന്ന ഞങ്ങള് അഞ്ചാറു പേര് കൂടിനിന്നാണ് സാറ്റ് കളിക്കുന്നത് അത് ആദ്യം ഇങ്ങനെ എണ്ണി മാറ്റിനിർത്തും എന്നിട്ട് അവസാനം വരുന്ന ആള് എണ്ണാന് പറയും അവര് എണ്ണാന് നേരത്ത് എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി ഒളിക്കും അഥവാ ഈ എണ്ണുന്ന ആള് കണ്ടുപിടിച്ച് സാറ്റടിക്കുവാണെങ്കില് അപ്പോള് അടുത്ത് എണ്ണേണ്ടത് ആദ്യം കണ്ടുപിടിക്കുന്ന ആളായിരിക്കും അഥവാ ഇയാള് കണ്ടുപിടിക്കാന് പോവാന് നേരത്ത് വേറെ ആരെങ്കിലും ആ സ്ഥലത്ത് വന്ന് സാറ്റടിക്കുവാണെങ്കിൽ വീണ്ടും ഈ ആദ്യം കിട്ടിയ ആളുതന്നെ എണ്ണേണ്ടി വരും പിന്നെ ഞങ്ങള് അതിങ്ങനെ കറങ്ങി കറങ്ങി ഓരോരുത്തരായി വരും പിന്നെ ഞങ്ങള് കളിക്കുന്ന ഈർക്കലി കളിക്കും ഈർക്കലി ഞങ്ങള് ഓരോ സൈസിലിങ്ങനെ എന്തോ വരെയൊക്കെ വരച്ച് കട്ട് ചെയ്ത് എടുത്തതിനു ശേഷം അതില് ഏറ്റവും വലുത് അച്ഛനാണ് ഞങ്ങളുടെ സങ്കൽപ്പത്തില് ഏറ്റവും വലിയ ഈർക്കലി അച്ഛനായിട്ടും അതില് ഇച്ചിരിയും കൂടെ ചെറിയ ഈർക്കലി അമ്മ പിന്ന ബാക്കിയുള്ള ഈർക്കലികള് പത്ത് ചെറിയ ഈർക്കിലുണ്ട് അത് മക്കളും അപ്പോള് അച്ഛൻ ഏറ്റവും താഴെയായിരിക്കും മക്കൾ അച്ഛൻ്റെ മേത്തോട്ട് നമ്മള് കുലുക്കി ഇടും അപ്പോള് അച്ഛൻ ഒരിക്കലും ഫ്രീ ആവത്തില്ല അപ്പോള് അമ്മ അമ്മേനെ കൊണ്ട് നമ്മള് ഒരു ഈർക്കലി വേറൊരു ഈർക്കലി അനങ്ങാതെ ആ ഈർക്കലി തട്ടി ഇടണം തട്ടി ഇടാൻ നേരത്ത് ആ ഈർക്കലി അനങ്ങുവാണെങ്കിൽ അടുത്തയാള്ക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോവും അങ്ങനെ അനക്കാതെ ഏറ്റവും കൂടുതൽ ഈർക്കലി എടുത്ത് മാറ്റുന്ന ആളായിരിക്കും ആ കളി വിൻ ചെയ്യുന്നത് ഞങ്ങള് ഇങ്ങനത്ത കളിയൊക്കെയാണ് കളിക്കാറുള്ളത് പിന്നെ ഞങ്ങള് സെറ്റ് കളിക്കും വള ഇടിച്ച് പൊട്ടിക്കും പല കളര് കുപ്പിവള ഇടിച്ച് പൊട്ടിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ കുലുക്കി ഇട്ടിട്ട് ഓരോന്ന് പെറുക്കിക്കൊണ്ടുപോവും ഒരാള്ക്ക് ഒരു കളര് എടുക്കണം അപ്പോള് നമ്മള്ക്ക് മഞ്ഞ കളർ സെലക്ട് ചെയ്യണമെങ്കില് നമ്മള് നമ്മളെ കയ്യിലുള്ള ബാക്കി കളർ അവിടെ വച്ചിട്ട് വേറെ ആരേലും മഞ്ഞ വയ്ക്കുവാണെങ്കില് അതെടുത്ത് ശേഖരിച്ച് ശേഖരിച്ച് ഏറ്റവും ആദ്യം അഞ്ച് മഞ്ഞ കളര് കിട്ടുന്നവരായിരിക്കും ജയിക്കുന്നത് അല്ലെങ്കില് വേറെ ഏതേലും കളറാണെങ്കില് ആ കളര് ഒരു സെറ്റ് കളര് കിട്ടുന്ന ആരാണോ അവര് ജയിക്കും അതാണ് സെറ്റ് കളി എന്ന് പറഞ്ഞാല് ഇതൊക്കെയാണ് ഞങ്ങള് സാധാരണമായിട്ടും കളിക്കാറുള്ള പരമ്പരാഗതമായ കളികൾ